ഞാൻ ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് ആഴ്ച്ചയോളം ആയി എനിക്ക് അതിൻ്റെ വിവരങ്ങളൊന്നും അറിയാൻ ഞാൻ എന്ത് ചെയ്യണം ഞാൻ പാസ്സ്പോർട്ടിന് വേണ്ടിയിട്ട് അപേക്ഷ വച്ചിട്ടുണ്ട് അപ്പോൾ ആധാർ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് പാസ്സ്പോർട്ട് കിട്ടുകയുള്ളു അപ്പം രണ്ടാഴ്ച്ച അതിനു വേണ്ടി ഞാൻ എന്തു ചെയ്യണം എൻ്റെ പിള്ളേരുടെ പഠിത്തത്തിൻ്റെ ആവിശ്യത്തിന് വേണ്ടിയും അവരുടെ അവരുടെ അവർക്ക് വേണ്ടി ഇത് തിരുത്തേണ്ടെ കാര്യം ഉണ്ട് അപ്പം അത് എൻ്റെ ആധാർ അപ്ഡേറ്റ് ചെയ്ത് കിട്ടിയാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് എൻ്റെ പാസ്സ്പോർട്ടിനും അല്ലെങ്കിൽ പിള്ളേരുടെ ആവശ്യത്തിനും എനിക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം അതിനു വേണ്ടി ഞാൻ രണ്ടാഴ്ച്ച ആധാർ പരിശോധിക്കാൻ കൊടുത്തിട്ട് എനിക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം അത് എനിക്ക് ഉടനെ കിട്ടുമോ അതോ ഞാൻ ഇനി അക്ഷയ കേന്ദ്രങ്ങളിലോ വല്ലതും പോണോ അവിടെ നിന്ന് അവർ വിളിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവരിതുവരെ വിളിച്ചിട്ടില്ല അപ്പം ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ അതിനാണ് ഞാൻ ഇത് കിട്ടിയാൽ മാത്രമേ എനിക്ക് എൻ്റെ പാസ്സ്പോർട്ടിന് അപേക്ഷ ആധാർ അപ്ഡേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് കിട്ടിയാൽ മാത്രമേ എനിക്ക് പാസ്സ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ പാസ്സ്പോർട്ട് ചെയ്തു കിട്ടി കഴിഞ്ഞിട്ട് എൻ്റെ പിള്ളേരുടെ ആവിശ്യങ്ങൾക്ക് വേണ്ടി പിള്ളേരുടെ കാര്യത്തിന് വേണ്ടി ചെയ്യാൻ ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്കിത് സാധിച്ച് കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം എന്തു ചെയ്യണം അതിന് അതിന് ഞാനെവിടെ രജിസ്റ്റർ ആധാർ ആ അക്ഷയയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പം അത് ചെയ്തിട്ട് ഹെൽപ്പ് ലൈനിലോ നേരിട്ടും ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പം എനിക്ക് എത്രയും പെട്ടെന്ന് ഇത് കിട്ടിയാൽ വലിയ ഉപകാരമായിരിക്കും എന്നു തോന്നുന്നു അപ്പം അത് എത്രയും പെട്ടെന്ന് ആധാർ അപ്ഡേറ്റ് ചെയ്ത് എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു അത് കിട്ടിയാൽ മാത്രമേ എൻ്റെ പിള്ളേരുടേയും മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് പോവാനും എനിക്ക് പറ്റത്തുള്ളൂ അപ്പം ആധാർ കൊണ്ട് എൻ്റെ തിരുത്തലിൻ്റെ ആവിശ്യമായ രേഖകകൾ അക്ഷയ വഴി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ അത് എത്രയും വേഗം പെട്ടെന്ന് എമർജൻസിയിൽ എനിക്ക് കിട്ടിയിരുന്നത് എങ്കിൽ ആധാർ ആധാർ പാസ്സ്പോർട്ട് പാസ്ബുക്ക് പാസ്സ്പോർട്ട് എടുക്കുവാനും സാധിച്ചേനെ എൻ്റെ പിള്ളാരുടെ കാര്യങ്ങൾക്കും അത് ഉപയോഗ പ്രദമായേനെ അതിന് എത്ര ദിവസം എടുക്കുമെന്ന് എന്തോന്ന് എനിക്ക് അറിഞ്ഞുകൂട അപ്പം അത് എത്രയും പെട്ടെന്ന് കിട്ടിയാൽ വളരെ ഉപകാരമായിരുന്നെന്ന് തോന്നുന്നു അക്ഷയ കേന്ദ്രത്തിൽ രജിസ്റ്റർ ചെയ്തിട്ട് താമസം വന്നാൽ ഞാൻ എന്തു ചെയ്യണം പെട്ടെന്ന് എനിക്ക് കിട്ടാനുള്ള ഒരു മാർഗ്ഗം നിർദ്ദേശിച്ച് തരുകയോ എന്തെങ്കിലും അപ്ഡേറ്റ് അപ്ഡേഷൻ ആധാറിൻ്റെ ആധാർ അപ്ഡേഷൻ എല്ലാം എത്രയും പെട്ടെന്ന് ചെയ്തു കിട്ടാൻ ഞാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്നു എൻ്റെ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളുടെ ആവിശ്യങ്ങൾക്കും അത് പ്രയോജനപ്പെടുത്താൻ അവരുടെ പഠിപ്പ് സംബന്ധമായ കാര്യങ്ങൾക്ക് അത്